ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി ആറ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ആറ് ഏഴ് രണ്ട് രണ്ടായിരത്തി എട്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്